വസ്ത്രങ്ങൾ കഴുകുന്നതിനുവേണ്ടിയിട്ട് സാധാരണ നമ്മള് ചെയ്യുന്നതുപോലെ തന്നെ സോപ്പ് പൊടിയില് വെള്ളം മുക്കിവച്ച് കുറച്ചു നേരം മുക്കിവച്ചിരിക്കും അതിനുശേഷം അത് നല്ലപോലെ അതിലെ അഴുക്കുകളെല്ലാം ഇത് വെള്ളത്തിലായിട്ടുണ്ട് എന്നുള്ളത് അതായത് ഒരു അഞ്ചുപത്തു മിനിറ്റോളം അങ്ങനെ മുക്കിവച്ചിരുന്നത് സോക്കേയ്തതിനുശേഷം എനിക്ക് ആരോഗ്യമുള്ള സമയത്താണ് എങ്കിൽ അതായത് പ്രത്യേകിച്ച് ശാരീരിക അസ്വസ്ഥതകളൊന്നും അനുഭവപ്പെടുന്നില്ലാത്ത സമയം ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നത് ആ വസ്ത്രങ്ങളെടുത്ത് കല്ല് അലക്കുന്ന കല്ലിൽ കൊണ്ടുപോയിട്ട് നല്ലതുപോലെ തിരുമ്മിക്കഴുകേണ്ട വസ്ത്രങ്ങളാണെങ്കിലത് തിരുമ്മി കഴുകും അതല്ല ഇനി തല്ലിയലക്കി കഴിഞ്ഞാലേ അതിലെ അഴുക്കുകൾ പോകുകയുള്ളൂ എന്നുള്ള വസ്ത്രങ്ങളാണെങ്കിൽ അതേപോലെ നല്ലതുപോലെ തല്ലിയലക്കി വൃത്തിയാക്കി അത് രണ്ടു തവണ മൂന്നു തവണ ഓരോ ബക്കറ്റ് വെള്ളമെടുത്തിട്ട് ഒരു തവണ കഴുകി പിന്നെ മറ്റൊരു തവണ ആ വെള്ളം മാറി മറ്റൊരു ബക്കറ്റിലേക്കാക്കിയിട്ട് വീണ്ടും അങ്ങനെ നല്ലതുപോലെ വൃത്തിയായിട്ട് രണ്ടുമൂന്നു തവണ മൂന്ന് ബക്കറ്റ് വെള്ളം അതായത് വൃത്തിയായിയെന്ന് ഉറപ്പുവരുത്താനായിട്ട് എന്നാലധികം വെള്ളം ഞാൻ ഉപയോഗിച്ചു കളയുകയുമില്ല കാരണം നീരൊഴുകുന്ന എന്നാ എന്താ പാഴാവും അങ്ങനെ എന്തോ ഒരു പഴഞ്ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം അധികം ഞാൻ ചെലവാക്കുകേല തന്നെയല്ല ഓരോ തുള്ളി വെള്ളം ഞാൻ ചെലവാക്കുമ്പോഴും ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളെൻ്റെ കൺമുമ്പിലുണ്ട് അതു കാരണം കൊണ്ട് വെള്ളം ഞാൻ അധികമായിട്ട് പാഴാക്കുകയീല്ല ആദ്യമേ കഴുകുന്ന വെള്ളമൊക്കെ ഈ വൃത്തികെട്ട വെള്ളമായിരിക്കും അതെല്ലാം ഞാന് കളയും വേസ്റ്റായിട്ടു കളയും അതിനുശേഷം വരുന്ന അധികം സോപ്പുമയം ഇല്ലാത്ത വെള്ളമാണെങ്കിൽ അതെല്ലാം ഞാന് മറ്റു വൃക്ഷങ്ങളുടെ ചുവട്ടില് ഒഴിക്കും കാരണം വെള്ളം പാഴാക്കുക എന്നു പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം എൻ്റെ ചെറുപ്പത്തില് ഒക്കെ എനിക്കറിയാം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അമ്മയൊക്കെ ഒരുപാട് ദൂരെനിന്ന് മല കയറി വെള്ളം ചുമന്നുകൊണ്ടുവന്നിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പൈപ്പോൺ ചെയ്തുകഴിഞ്ഞാൽ വെള്ളം കിട്ടും ആ സൗകര്യങ്ങൾ നമ്മളിന്നനുഭവിക്കുന്നുണ്ട് എങ്കിൽപ്പോലും പണ്ടുകാലത്തനുഭവിച്ചിരുന്ന അല്ലായെങ്കിൽ കണ്ടിട്ടുള്ളതായ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്നും നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടും ഇന്നത്തെക്കാലത്ത് കുടങ്ങളുമായി നീണ്ട നിരയായിട്ട് ഓരോ സ്ഥലത്തും ആളുകൾ വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്ന മൂന്നും നാലും ദിവസങ്ങള് വരെയൊക്കെ വെള്ളത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെയുള്ളതുകൊണ്ടു തീർച്ചയായിട്ടും വെള്ളം ഒരിക്കലും അധികമായിട്ട് ഞാൻ പാഴാക്കുകേല പിന്നെ വസ്ത്രം കഴുകുന്നതിന്റെ വസ്ത്രം കഴുകുക എന്നത് ഈ വിധത്തില് അത് ഓരോ വസ്ത്രങ്ങൾക്ക് അനുയോജ്യമായിട്ട് ഉള്ള വിധത്തില് അല്ലെങ്കില് വസ്ത്രങ്ങൾ കഴുകുന്നത് അത് നൈസായിട്ടുള്ള വസ്ത്രങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിന്റേതായ ശ്രദ്ധ കൊടുത്ത് വളരെ സാവകാശം വൃത്തിയായിട്ട് അത് മാറ്റിവയ്ക്കും അതല്ല കട്ടിയുള്ള വസ്ത്രങ്ങളാണെങ്കിലതേപോലെ ചെയ്യും പിന്നെ അതുമല്ല ഇനിയിപ്പോൾ വയ്യാത്തൊരു അവസരമാണ് ശാരീരികമായിട്ടു ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ ഒക്കെ ഉള്ള ഒരു സമയത്താണെങ്കിൽ ഞാന് അത് വാഷിംഗ് മെഷിൻ ഉപയോഗിക്കാറുണ്ട് അത് വേനൽക്കാലത്തു കൂടുതലും ഞാൻ വാഷിംഗ് മെഷിൻ ഉപയോഗിക്കുകയില്ല കാരണം എന്നാന്നുവച്ചാല് വാഷിംഗ് മെഷ്യനുപയോഗിക്കുമ്പോൾ കൂടുതൽ വെള്ളം നമുക്ക് ചെലവാകുന്നുണ്ട് അപ്പോൾ നമ്മള് അല്ലാതെയാണ് എങ്കിൽ തീർച്ചയായിട്ട് നമുക്ക് അല്ലാതെ അലക്കുകല്ലിൽ അലക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ചിരട്ടി ആറിരട്ടി വെള്ളം കൂടുതല് നമുക്ക് വാഷിംഗ് മെഷിനിൽ ഉപയോഗിക്കേണ്ടിവരുന്നുണ്ട് എന്നുള്ളതാണ് അതുകാരണംകൊണ്ട് ഞാന് വാഷിംഗ് മെഷിൻ വളരെ റെയറായിട്ടു മാത്രമേ ഉപയോയിക്കാറുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒന്നുകിൽ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ അല്ലായെങ്കിൽ മഴക്കാലത്ത് മഴക്കാലത്ത് നമുക്ക് വസ്ത്രങ്ങള് പുറത്തലക്കാൻ വയ്യാത്ത സന്ദർഭങ്ങളില് വാഷിംഗ് മെഷിൻ ഉപയോയിക്കും അതുപോലെതന്നെ പിന്നെ അത് ഉണങ്ങുന്നതിന് വേണ്ടീട്ട് വാഷിംഗ് മെഷിൻ ഉപയോഗിക്കാറുണ്ട് അത് സാധാരണ അവസ്ഥയില് തുണി ഉണങ്ങുവാനായിട്ട് വേനൽക്കാലത്തൊക്കെയാണ് എങ്കില് അതു പിഴിഞ്ഞ് തണലുള്ളിടത്ത് തണലെന്നു പറഞ്ഞുകഴിഞ്ഞാല് രാവിലെ മുതല് വൈകുന്നേരം വരെ വെയിലേറെ ഏല്ക്കുന്ന സ്ഥലത്തല്ല എന്നാല് നന്നായിട്ട് എന്താ എയർ സർക്കുലേഷനുള്ള നല്ല അതുപോലെ വിശാലമായ സ്ഥലത്ത് വെയിലും ചൂടേല്ക്കും പക്ഷേ എങ്കിൽ അമിതമായ വെയില് ഏല്ക്കുകേലാത്ത സ്ഥലത്ത് അഴകെട്ടിയാണ് വസ്ത്രങ്ങള് ഉണങ്ങാറുള്ളത് പിന്നെ എന്താ പറയുന്നത് ധാരാളം വെള്ളം പാഴാക്കുന്ന സ്വഭാവം എനിക്ക് ഇല്ല എന്നു ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഈ പറഞ്ഞതുപോലെ മഴക്കാലമാണെങ്കിൽ മഴക്കാലത്താണെങ്കില് ഞാന് വാഷിംഗ് മെഷീനകത്തു തന്നെയാണ് തുണി അലക്കുന്നതും അതുപോലെ തന്നെ ഉണങ്ങുവാനായിട്ടാൻ ഡ്രൈ ചെയ്യുന്നതും എല്ലാം വാഷിംഗ് മെഷിനിൽ തന്നെയാണ് എനിക്ക് അത് കാരണംകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശ്യമുണ്ട് വേനല്ക്കാലമാണെങ്കിൽ നമുക്ക് അത്രയും കറന്റ് ലാഭിക്കുകയും ചെയ്യാം നമ്മൾക്ക് വേനല്ക്കാലത്ത് വാഷിംഗ് മെഷിൻ ഡ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കണ്ട ആവശ്യമില്ല ആ സമയങ്ങളിലെല്ലാം ഞാന് വെയിലത്തിട്ട് തുണി ഉണങ്ങിയെടുക്കും മഴക്കാലത്താണെങ്കില് വാഷിംഗ് മെഷിനില് ഡ്രൈ ചെയ്ത് എടുക്കാറും ഉണ്ട്